ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ ചിത്രരചന പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പഠിക്കുന്നതിനേക്കാളിലും താല്പര്യം ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിരുന്നു അപ്പം എപ്പോഴും ഞങ്ങൾ ഫ്രീ പിരീഡ് ഒക്കെ കിട്ടുമ്പോഴാണെങ്കിലും ഏതെങ്കിലും ടീച്ചർമാർ വന്നില്ല എന്ന് അറിയുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ചിത്ര പഠി വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ടീച്ചറിനെ എപ്പോഴും പോയി വിളിക്കുമായിരുന്നു എന്നിട്ട് ടീച്ചറിനെ നിർബന്ധിച്ച് വിളിപ്പിക്കും എന്നിട്ട് പൂവൊക്കെ വരയ്ക്കാൻ ആണെങ്കിലും മറ്റേ അഞ്ചൊക്കെ വരച്ചിട്ട് പട്ടിക്കുട്ടീനെ ഒക്കെ വരയ്ക്കുക ഓരോ നമ്പേഴ്സിൽ നിന്ന് ഓരോ കിളികളെ ഒക്കെ വരയ്ക്കാൻ പഠിക്കുക അങ്ങനെ ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ച് ഞങ്ങളൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് വരയ്ക്കുക പിന്നെ കളർ പെൻസിൽ വാങ്ങിയിട്ട് അടിക്കുക ഓരോരുത്തർ പുതിയ കളർ പെൻസിൽ ഒക്കെ കൊണ്ട് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ അസൂയയോടെ ആയിരുന്നു നോക്കുന്നത് അതായത് എനിക്കതില്ലല്ലോ നിനക്കതുണ്ടല്ലോ അങ്ങനെ എന്നിട്ട് അവർ എല്ലാവരും കൂടി ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു കളർ ചെയ്യുന്നതും അതൊക്കെ വളരെ രസകരമായ നിമിഷങ്ങളായിരുന്നു ഓർമ്മിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് ഇത് പോലെയുള്ള കാര്യങ്ങളിലാണ് കുറച്ചും കൂടി താല്പര്യം വളരെ നല്ല രസമായിരുന്നു ആ കാലം അല്ലെങ്കിൽ ആ സ്കൂളിൽ പൊയിക്കൊണ്ടിരുന്ന ആ ഒരു സമയം വളരെ രസമായിരുന്നു ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരുന്നു